ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ് ഇന്ത്യയിൽ പണ്ട് നിലനിന്നിരുന്നത് എന്ന് പറയുന്നത് ഹിന്ദു നദീതട സിന്ധു നദീതട സംസ്കാരം ഹാരപ്പാ അങ്ങനെയെക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ പ്രധാനപ്പെട്ട സാംസ്കാരിക പാരമ്പര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഗുരുകുല സമ്പ്രദായം നിലനിന്നിരുന്നു പിന്നെ വേദം അതായത് സന്യാസിമാർ ഋഷിവര്യൻമാർ തപസ്സ് ചെയ്യും തപസ്സ് ശ്രേഷ്ഠന്മാർ ഗുരുകുല സമ്പ്രദായം അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നിലന്നിരുന്നത് ഗുരുകുലം എന്ന് പറയുമ്പോൾ അവിടെ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അവന് അക്ഷരാഭ്യാസം തുടങ്ങാറാവുമ്പം ഒരു ഗുരുവിൻ്റെ കീഴിൽ അവനെ രാജാവിൻ്റെ ആയാലും ആരുടെ ആയാലും എത്ര വലിയവൻ്റെ ആയാലും ആ കുഞ്ഞുങ്ങളെ ആ ഗുരുവിൻ്റെ കീഴിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ അവൻ്റെ വിദ്യാഭാസ്യത്തിനൊരു കാലഘട്ടമുണ്ട് അതെല്ലാം കഴിഞ്ഞ് അവൻ അതിൽ വിജയിച്ച് കഴിയുമ്പോഴാണ് അവനെ തിരിച്ച് ലോകത്തിലേക്ക് പ്രാപ്തനാക്കി തിരിച്ച് വീട്ടിലേക്ക് പോവുന്നത് അങ്ങനെക്കെയുള്ള സംസാരം സസ്കാരമായിരുന്നു ഇവിടെ നിലനിന്നത് വിശ്വാസങ്ങൾ എന്ന് പറയുമ്പം പല വിവിധ മതങ്ങൽ ഇവിടെയുണ്ട് ഹിന്ദു പാഴ്സി സിക്ക് ജൈന ക്രിസ്റ്റ്യയൻ മുസ്ലിം അങ്ങനെ പല വിധത്തിലുള്ള മത വിശ്വാസങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും അതുപോലെ ഭാഷകൾ വ്യത്യസ്തമാണ് അവരുടെ ആചാര രീതികളും ഭക്ഷണ രീതികളൊക്കെ വ്യത്യസ്തമാണ് അങ്ങനെ പല തരത്തിലും ഇന്ത്യ എല്ലാ തരത്തിലും വ്യത്യാസം അതായത് ഏകത്വത്തിൽ നാനാത്വമുള്ള നാനാത്വത്തിൽ ഏകത്വം പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് രാജ്യമാണ് ഇന്ത്യ